പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാല് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്